ഞാൻ ഒഴിവ് സമയങ്ങളിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കൂട്തലും ഫോണ് കാണും പിന്നെ കുറച്ച് സമയത്ത് പഠിക്കും പിന്നെ പിന്നെ കൂട്ടുകാരന്മാരൊക്കെ വിളിക്കുന്നു എന്നുണ്ടെങ്കിൽ കളിക്കാൻ വേണ്ടിയൊക്കെ പോകും ടറഫുകളിലൊക്കെ ഫുട്ബോൾ കളിക്കാനാണ് കൂടുതലും പോകുന്നത് അങ്ങനെ കളിക്കാൻ പോകും പിന്നെ കൂടുതലും ഫോണും പിന്നെ ടിവി കുറച്ച് മാത്രമാണ് കാണുന്നത് പിന്നെ കൂടുതലും ഫോൺ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ കുറച്ച് പഠിക്കും അങ്ങനെയൊക്കെ മാത്രമാണ് പിന്നെ ബുക്ക് വായിക്കും ചില സമയങ്ങളിൽ ഉറങ്ങാൻ കിടക്കുന്ന സമയങ്ങളിൽ ബുക്ക് വായിക്കും അത്രയൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ള വിനോദങ്ങൾ